ചേരുവകൾ ഉൾപ്പടെ അതായത് ഒരു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അതായത് എൻ്റെ അമ്മമ്മ ഒക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അമ്മിയിലരക്കുകയാ ചെയ്യുക അതായത് മല്ലിവറുത്തിട്ട് അമ്മിയിലരക്കും അതുപോലെ പിന്നെ മുളകില്ലേ ചൊവന്നമുളക് വറുത്തിട്ട് അമ്മിയിലരക്കും പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ വീട്ടിൽ പൊടിച്ചു വെച്ചത് അതെല്ലാം അമ്മിയിലാണ് അരക്കുക മസാലകളൊക്കെ അമ്മിയിലരയ്ക്കും പിന്നെ ഈ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ളതൊക്കെ നല്ലവണ്ണം ചൂടാക്കിയിട്ട് അമ്മിയിലരച്ചിട്ടാണ് കറി വെക്കുക അപ്പം അതായത് ഒരു ദിവസം എനിക്ക് ഉണ്ടാക്കി തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് ഞാനത് വീട്ടിൽ പോയപ്പോൾ അമ്മേനോട് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ഉണ്ടാക്കിയതാണ് വീട്ടിൽ ചെറിയൊരു അമ്മിയുണ്ട് അപ്പോൾ ഞാനിതെല്ലം അതായത് എല്ലം ചൂടാക്കി അതായത് മല്ലി മുളക് അതായത് ചിക്കൻ മസാല ഇട്ടില്ല അതിനുപകരം ഗ്രാമ്പൂ പട്ട അങ്ങനെയൊക്കെ ഇട്ട് എല്ലം ചൂടാക്കിയിട്ട് എല്ലാം കൂടി ഒരുമിച്ച് അമ്മിയിലരച്ച് ആ മസാല ചിക്കനിൽ ചിക്കനിൽ പെരക്കി വെച്ചു പെരക്കി വെച്ചതിനു ശേഷം വെളിച്ചെണ്ണയൊക്കെയൊഴിച്ച് കറിവേപ്പിലയൊക്കെ കടുകും ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഈ മസാല ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അതായത് പച്ചമണം മാറ്റിയെടുത്തിട്ട് ചിക്കനിട്ടു ചിക്കൻ ഇട്ടു കഴിഞ്ഞ് അത് കുറച്ച് കഴിയുമ്പോൾ വെന്ത് പിന്നെ നല്ല കളറായിട്ട് വരും അത് ആ സമയത്ത് നമ്മൾ ഇത്തിരി മുളകുപൊടി കൂടി കുരുമുളക് പൊടി കൂടി ഇടും അപ്പോൾ അടിപൊളി ചിക്കൻ കറിയാകും